അധികം വലിയ കൂട്ടം ആൾക്കാരെയെന്ന് പറയാനില്ല ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് പേരൊൾക്കു വേണ്ടിയിട്ടുള്ള ആ രാവിലത്തെ ഭക്ഷണം ഉച്ചക്ക് വൈകുന്നേരം ഈ മൂന്നു നേരോം ഭക്ഷണം ഒരു പത്തു പതിനാറ് ദിവസം ഞാൻ ആ തുടർച്ചയായി ഉണ്ടാക്കേണ്ട അവസരം എൻ്റെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഫാദറിൻലോ മരണമടഞ്ഞതിനു ശേഷം ബന്ധുമിത്രാദികൾ എല്ലാവരും പതിനാറു ദിവസത്തേക്ക് നമ്മുടെ വീട്ടിൽ നിന്നായിരുന്നു ഭക്ഷണം കഴിച്ചോണ്ടിരുന്നത് ആ ഒരു സമയത്ത് വളരെ അധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട് ആ ഒരു ബുദ്ധിമുട്ട് അത് അനുഭവിച്ചവർക് മാത്രമേ അറിയുള്ളു കൊടുക്കുന്നതിൽ സന്തോഷം മാത്രം പക്ഷേ നമ്മളെ സഹായിക്കാനും നമ്മളെയൊന്ന് കൈത്താങ്ങായി നമ്മളെ ഒരാളിൽ കൂടുതൽ നമ്മളത്രേം കിടന്ന് കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെയൊന്ന് സഹായിക്കാനായിട്ട് എനിക്കാകെ വത്സല എന്ന് പറയുന്ന ചേച്ചി മാത്രമേ എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളു വേറാരും ഒരു രീതിയിലുള്ളൊരു സഹകരണം എനിക്ക് ഉണ്ടായിട്ടില്ല അത് വളരെ അധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ ഇതേകാര്യം തന്നെ പലരും ഈ വരുന്നയെല്ലാവരും സഹകരിച്ച് ഒരുമിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അത് വളരെ ഒരു മരണവീടാണെങ്കിൽ കൂടിയും നമുക്കൊരു ആശ്വാസവും ആ ഒരു പണീടെ ഒരിതുകൊണ്ട് ഞാനാ ഒരു പത്ത് പതിനാറ് ദിവസം കൊണ്ട് എൻ്റെ വെയിറ്റ് നേരെ പകുതിയായി എന്നുള്ളതാണ് ഞാനിതു അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റോം കൂടുതൽ ഞാൻ ബേഡനായിട്ട് ഞാൻ ചെയ്ത ഒരു കാര്യം നമുക്ക് ഫുഡ് ഉണ്ടാക്കൽ മാത്രമല്ല ഉണ്ടാക്കി കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണത്തിനു ശേഷം എഴുന്നേറ്റ് പോകും അതിൻ്റെ പത്രങ്ങൾ വൃത്തിയാക്കുന്നതും കിച്ചൺ വൃത്തിയാക്കുന്നതും തുണികഴുകുന്നതും ഇതെല്ലം കൂടി വരുമ്പോൾ നമുക്ക് ഏറ്റോം കൂടുതൽ ബേഡനായിട്ടുള്ളൊരു കാര്യമാണ് പിന്നീട് എനിക്ക് ഞാൻ എനിക്ക് ഫുഡ് കഴിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ എങ്കിലും പിന്നീട് എനിക്ക് സങ്കടം തോന്നിയൊരു നിമിഷം എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയെ സംബധിച്ചിടത്തോളം ഏറ്റോം കൂടുതൽ വിശ്രമം ആവിശ്യമായ ഗർഭകാലം ആദ്യത്തെ മൂന്ന് മാസം ആ സമയത്ത് ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന് ഇവിടെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ ആശുപത്രിയിൽ കിടക്കുമ്പോൾ എനിക്ക് ഞാനാണെങ്കിൽ ഒരു വർക്കിങ്ങ് വുമണാണ് ഞാനൊരു അധ്യാപികയാണ് രാവിലെ ജോലിക്ക് വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞ് ഫുഡ് കൊണ്ടു കൊടുക്കണം അവർക്ക് ഹോസ്പിറ്റലിൽ പിന്നെ എനിക്ക് ജോലിക്ക് പോകണം ജോലി കഴിഞ്ഞ് വന്നാലും എനിക്ക് ഉച്ചക്ക് വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം വീട് ക്ലീനിങ് ഉണ്ട് വീട്ടിലെ പണിയുണ്ട് ഹസ്ബൻഡിൻ്റെ എൻ്റെ എല്ലാം അലക്കാനുണ്ട് ഇതെല്ലാക്കാര്യങ്ങളൂടി വരുമ്പോൾ ആ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന നേരം അ അ അന്നാണെങ്കിൽ ഗസ്റ്റും വരും സകല സമയത്തും ഗെസ്റ്റൂടി ആയിക്കഴിഞ്ഞു കഴിയുമ്പോൾ എൻ്റെ അന്നത്തെ ഹെൽത്തിൻ്റെ കാര്യമോർത്തിട്ട് ഇന്നോർക്കുമ്പോൾ എനിക്ക് വളരെ അധികം ഭയമാണ് തോന്നുന്നത് ദൈവം സഹായിച്ച് എൻ്റെ മോൾക് ഇതുവരേം ഒരു കുഴപ്പോം ഉണ്ടായിട്ടില്ല ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കണമേ എന്നാണെൻ്റെ പ്രാർത്ഥന പക്ഷേ ഞാൻ അന്നനുഭവിച്ച വേദന മീൻസ് നമുക്കേറ്റവും കൂടുതൽ ക്ഷീണവും ഭയങ്കര ബുദ്ധിമുട്ടും തോന്നുന്ന സമയമാണത് എങ്കിപ്പോലും എന്നെ സഹായിക്കാൻ ഒരാളുപോലും ഉണ്ടായിട്ടില്ല അപ്പോൾ ഫുഡുണ്ടാകും എന്ന കാര്യം പറയുമ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് വളരെ വിഷമത്തോടെ കടന്നു വരുന്ന രണ്ട് സാഹചര്യങ്ങൾ